എൻ്റെ പ്രദേശത്തെ ഗതാഗത രീതിയെന്നു പറയുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലൂടെയാണ് ഇപ്പം കടന്നു പോവുന്നത് എന്താണെന്നു വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള വഴി വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് ഇപ്പം കടന്നു പോവുന്നത് അതുകൊണ്ടുതന്നെ സ്വകാര്യ വ്യക്തികൾ സ്വന്തം വാഹനങ്ങൾ പോലും മറ്റേതെങ്കിലും വഴിയിലൂടെ അവര് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ മറ്റേതെങ്കിലും വഴി കണ്ടെത്താനാണ് ഇപ്പോൾ അവര് ശ്രമിക്കുന്നത് അതുപോലെതന്നെ ബസ് സൗകര്യം ആണെങ്കിൽ പോലും വളരെ കുറവാണ് വിരലിലെണ്ണാം പറ്റുന്ന തരത്തിൽ അത്രമാത്രം ബസുകൾ മാത്രമാണ് ഈ പ്രദേശത്ത് കൂടി കടന്നു പോകുന്നത് എവിടെയെങ്കിലും പോകണമെങ്കിൽ കറക്ട് ആ ബസിൻ്റെ സമയം നോക്കി നിന്നാൽ അതിനു പോകാം അതല്ല സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയെങ്കിൽ യാത്ര മുടങ്ങുക തന്നെ ചെയ്യും അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇപ്പം കടന്നു പോകുന്നത് കുറച്ച് കുറച്ചധികം ബസ് ഈ പ്രദേശത്ത് ഇറങ്ങണമെങ്കിൽ പോലും ഈ വഴി നന്നാക്കാതെ അത് ആരും തയ്യാറാകില്ലെന്നാണ് തോന്നുന്നത്